ഹലോ ആ ആ അതെ ഫിഷ് മാർക്കറ്റ് തന്നെയാണ് ഇവിടെ പുഴ മീനുകളുണ്ട് പിന്നെ ആവോലി നത്തല് സ്രാവ് അങ്ങനത്തെയൊക്കയുണ്ട് അയക്കൂറയുണ്ട് ആ ആയിക്കോട്ടെ ആ

ആ ചിക്കനുണ്ട് ബീഫുണ്ട് മട്ടനുണ്ട്

ആയിക്കോട്ടെ

ആ ആ ആ പന്നിയുണ്ട്

വില കുറച്ചുതരാം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് മാനന്തവാടിയാണോ നമ്മള് ഈ കാട്ടിക്കുളത്ത് നിന്ന് ഈ പനവല്ലി ആ ഭാഗമൊക്കെ ഇങ്ങനെയെ കൊടുക്കുകയുള്ളൂ അത് അങ്ങോട്ട് വരുമ്പോള് ദൂരം കൂടുതലല്ലേ ആ നമ്മള് തന്നെ ഡിസ്കൗണ്ട് തരാം ആ അതൊന്ന് നമുക്ക് നോക്കാം കിലോ ബീഫിന് മുന്നൂറെയുള്ളൂ മുന്നൂറ്റിയമ്പത് ചിക്കന് നൂറ്റിയറുപത് പന്നിക്ക് മുന്നൂറ്റിയമ്പത് ആ കുറയ്ക്കാം കുറയ്ക്കാം

അല്ലല്ല നമ്മൾ അവിടെ എത്തിച്ചുതരും നമ്മള് നാളെ വൈകുന്നേരം തന്നെ എത്തിക്കും ആ നിങ്ങള് ആ ആ സ്ഥലം എവിടേക്കായിട്ടാണ്

അവിടെ എത്തിക്കണം ആണോ ആ തോണിച്ചാല് ആ ഭാഗം

ആ ആയിക്കോട്ടെ കല്യാണമാവശ്യത്തിന് നമ്മള് ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാറുള്ളതാണ് ആ ആ ആ നിങ്ങള് നമ്മള് അവിടെ വന്നിട്ട് പൈസ നിങ്ങള് തരുമോ അല്ലെങ്കില് അയച്ചുതരുമോ ആ നമ്മളെന്നാല് നാളെ വൈകുന്നേരമാകുമ്പോഴത്തേക്കും അവിടെയെത്തും അപ്പോള് അങ്ങനെ തന്നാല് മതി ആ കറക്റ്റ് നമ്മള് നാളെ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് എത്തിക്കും

ആയിക്കോട്ടെ ആ